മൃഗങ്ങളെ വളർത്തുന്നത് കൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങൾ ഉണ്ട് ഇപ്പോൾ പശുവിന് വളർത്തുകയാണെങ്കിൽ നമുക്ക് അതിനക്ത്തു നിന്ന് പാൽ കിട്ടുന്നു ചാണകം കിട്ടുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിനാകത്ത് നിന്ന് തന്നെ കിട്ടുന്നു പിന്നെ ആട് ആടിനെ വളർത്തുന്നതിലും ആടിൻ്റെ ആട്ടും കാട്ടം കിട്ടുന്നു പാൽ കിട്ടുന്നു പിന്നെ അത് മാംസമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് പന്നീനെ വളർത്തുന്നതിലും നമുക്ക് അധികം ചിലവില്ലാത്ത ഒരു സാധനമാണ് പന്നിനെ വളർത്തുന്നതിന് വേസ്റ്റ് കൊടുത്താൽ മതി നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഫുഡിൻ്റെ വേസ്റ്റ് അങ്ങ നെയൊക്കെ കൊടുത്താൽ തന്നെ പന്നിനെ വളർത്താൻ എളുപ്പമായിട്ടുള്ള കാര്യമാണ് പിന്നെ ചെമ്മരി ആട് അങ്ങനത്തെ ഇതേ പോലത്തെ ആണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ അകത്തു നിന്ന് പാലും കിട്ടും മാംസവും കിട്ടും പിന്നെ അതിൻ്റെ അകത്തു നിന്ന് ചെമ്മരിയാടിൻ്റെ രോമം ഉപയോഗിച്ചു നമുക്ക് കമ്പളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നയാണ് അതുപോലെ കോഴി കോഴി വളർത്തൽ കൂടെ നമുക്ക് കോഴിനെ ഇറച്ചിയും കിട്ടും കോഴി കാട്ടവും പിന്നെ മുട്ട കോഴിയായിട്ട് നമുക്ക് വളർത്താം അങ്ങനെ കുറേ ഗുണങ്ങൾ ഉണ്ട് നമ്മൾ കോഴിനെ വളർത്തുന്നതു കൊണ്ട് പിന്നെ കോഴി തൂവൽ കോഴി തൂവൽ ഉപയോഗിച്ചു നമുക്ക് ഷട്ടിൽ കോക്ക് അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അവിടേക്ക് കൊണ്ടുപോവുന്നുണ്ട് കോഴിൻ്റെ ഏകദേശം ഫുൾ വേസ്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കോഴി അങ്ങനെ മൃഗങ്ങളെ വളർത്തുന്നത് കൊണ്ട് നമുക്ക് ഗുണകരായ കാര്യങ്ങൾ പലതുമുണ്ട് ആട് കോഴി പശു താറാവ് താറാവിനെ വളർത്തുന്നതോടെ ഇതേപോലെ താറാവിൻ്റെ കാഷ്ടം താറാവ് ഇറച്ചി മുട്ട എന്നിവയെല്ലാം നമുക്ക് ലഭിക്കുന്നു